ഇപ്പോൾ ലോകത്ത് എവിടെ പോകണം എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാല് എനിക്ക് കൂടുതലായിട്ടും പോകാൻ ആഗ്രഹം ഉള്ളത്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ആ അമേരിക്കയാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണംന്താച്ചു കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ അമേരിക്കൻ കൺട്രീസിലാണ് അവിടേണ്ന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ള ആൾക്കാരും ഒക്കെയാണ് കാരണംന്താ കഴിഞ്ഞാ നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും പല രീതിയിലുള്ള കടകള് പിന്നെ ഒന്നാമത് സാമ്പത്തിക സ്ഥിതി ആയിട്ടൊക്കെ കുറച്ചും കൂടി മെച്ച മെച്ചപ്പെട്ട് നിക്കുന്നത് നമ്മുടെ അമേരിക്കയാണ് അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് അവിടെ നല്ല രീതിയിലുള്ള സംഭവ സമ്പത്ത് വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ ആയിട്ടും ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ എനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോകുന്നത് അമേരിക്ക തന്നെയായിരിക്കും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അവിടെ താമസിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ആസ്ട്രേലിയയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടാണ് ഒരു ഒരു രണ്ടുമൂന്നു മാസൊക്കെ അവിടെ പോയിട്ട് താമസിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാന് അപ്പോൾ ഇവിടെയൊക്കെണ് മെയിനായിട്ട് എനിക്ക് പോകാൻ ആഗ്രഹുള്ളത്